എൻ്റെ പാൻ കാർഡ് വെള്ളം ചേർന്നതിനാൽ നിങ്ങൾ അത് കേടുപാടുകൾ സംഭവിച്ചു അതിനാൽ എനിക്ക് പുതിയ ഒരു പാൻ കാർഡ് ആവശ്യം ഉണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അക്ഷയാ കേന്ദ്രത്തിൽ പോയി എൻ്റെ ഡീറ്റെയിൽസ് അത് പോയത് പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഒറിജിനൽ പാസ്പോർട്ടും ആധാറിൻ്റെ കോപ്പിയും കൂടി നൽകി പുതിയ ഒരു പാൻ കാർഡിന് അപ്ലൈ ചെയ്തു പക്ഷേ അപ്പോൾ അവർ പറഞ്ഞു പുതിയ പാൻ കാർഡിന് പാസ്പോർട്ടിൻ്റെ കോപ്പിയും നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും കൂടെ കൊടുത്ത് കഴിഞ്ഞാൽ അവർ അപ്ലൈ ചെയ്യും അതിന് ശേഷം ഒരു സേട്ടെൻ വൺ വിത്തിൻ വൺ മന്ത് നിങ്ങൾക്ക് പാൻ കാർഡ് വീട്ടിൽ എത്തിച്ച് തരും എന്നാണ് എന്നോട് പറഞ്ഞത്